അടുക്കളയിൽ നമ്മളത്യാവശ്യം എല്ലാ തരം പാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് മൺപാത്രങ്ങളുപയോഗിക്കാറുണ്ട് ചോറ് വെക്കാനും മീൻ കറി വെക്കാനൊക്കെ നമ്മൾ മൺചട്ടി ഉപയോഗിക്കാറുണ്ട് പിന്നീട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് കൂടുതലായിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കാറ് ആ ഇപ്പം എന്തെങ്കിലും കറി വെക്കാനും ചൂടാക്കാനും മറ്റ് ആവശ്യത്തിനും എല്ലാറ്റിനും അത്യാവശ്യം നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ അലൂമിനിയ പാത്രമുണ്ടെങ്കിലും ചൂടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളത് എടുക്കാറില്ല പിന്നെ ഈ ദോശ അപ്പം പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ നോൺ സ്റ്റിക്കി പാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എല്ലാത്തരം പത്രങ്ങളും നമ്മുടെ അടുക്കളയിലുണ്ട് പിന്നെ സാമഗ്രികളെന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സാമഗ്രികളും നമ്മുടെ അടുക്കളയിലുണ്ട് പിന്നീട് പത്രങ്ങൾ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ സ്റ്റീൽ പത്രങ്ങളാണ് കൂടുതലും പിന്നെ സെറാമിക്സ് പാത്രങ്ങളും ഉണ്ട് പിന്നെ ഗ്ലാസിൻ്റെ പത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ അല്ലാത്ത ഐറ്റംസ് ഗ്രൈന്ഡർ കെറ്റിൽ അങ്ങനെ എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്